സ്വച്ഛഭാരത് അഭിയാൻ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ശുചിത്വ പദ്ധതിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഗാന്ധി ജയന്തി ദിനത്തിൽ ഗാന്ധി ജ ജയന്തി ദിനവുമായി ബന്ധപ്പെട്ടുക്കൊണ്ടാണ് ശുചിത്വ വാരാചരണം നടത്തുന്നതും സ്വച്ഛ് ഭാരത് വാരാചരണമൊക്കെ നടത്തുന്നത് ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലും സ്കൂളുകളിലും ഓഫീസുകളിലും കേന്ദ്രീകരിച്ചുക്കൊണ്ട് പൊതുസമൂഹത്തെയും ഉദ്യോഗസ്ഥരെയും വിദ്യാർത്ഥികളെയും ഒത്ത് കോർത്തിണക്കിക്കൊണ്ട് ഇന്ത്യയിലെ നഗരപ്രദേശങ്ങളും റെയിൽവേ സ്റ്റേഷനുകളും ബസ്റ്റാൻഡുകളും വഴിയോരങ്ങളും വൃത്തിയാക്കുന്ന ഒരു പ്രവണത കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലായിട്ട് സ്വച്ഛ് ഭാരത് അഭിയാനുമായിട്ട് ഉണ്ട് ഞാനും തീർച്ചയായും എൻ്റെ ഈ സ്വച്ഛ് ഭാരത് അഭിയാനുമായി ബന്ധപ്പെട്ട ശുചിത്വ യജ്ഞത്തിൽ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാനും പങ്കെടുത്തിട്ടുണ്ട് വൃത്തിയാക്കുന്നതിലുണ്ട് പിന്നെ എൻ്റെ ചുറ്റുമുള്ള പ്രദേശത്തെ സംബന്ധിച്ചെടുത്തോളം തീർച്ചയായും ഞാനും എന്റെ ഞാൻ താമസിക്കുന്ന വീടും പരിസരവും ചെ തീർച്ചയായും അത് വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പിന്നേ എൻ്റെ ഓഫീസ് പരിസരവും അതുപോലെ തന്നെ വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് മെച്ചപ്പെടുത്തേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക് നമ്മൾ ഇന്ത്യയിൽ സ്വച്ഛ് ഭാരത് അഭിയാനൊക്കെ സർക്കാർ തലത്തിൽ തന്നെ നടത്തുന്ന വലിയൊരു കാര്യം തന്നെയാണ് പക്ഷേ നമ്മൾ സർക്കാർ ചെയ്യുന്നതിലുപരി ജനങ്ങൾ ഓരോരുത്തരും ഇത് നമുക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് നമുക്കുവേണ്ടി തന്നെയാണ് ശുചിത്വം പാലിയ്ക്കേണ്ടത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മര്യാദ ശുചിത്വത്തിനുള്ള മര്യാദകൾ ഓരോരുത്തരും പാലിയ്ക്കേണ്ടതാണ് അതായത് കൃത്യതാ ചപ്പു ചവറുകൾ അവിടെ ഇവിടെയുമൊക്കെ തോന്നിയപോലെ അലസമായിട്ട് വലിച്ചെറിയാതിരിക്കുക കൃത്യമായിട്ടുള്ള വേസ്റ്റ് ബിന്നിൽ നിക്ഷേപിക്കുക കൃത്യമായിട്ട് അതിനെ വേസ്റ്റുകളെ കൃത്യമായിട്ട് വേ ചപ്പു ചവറുകൾ കൃത്യമായി നശിപ്പിച്ച് കളയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓരോ ജനങ്ങളും ശീലിക്കേണ്ട ഒരു ശീലമായിട്ട് തന്നെ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യമാണ്